ഗ്രാമത്തില് വീട് പണിയുമ്പോള് പ്രത്യേകപരമായിട്ട് ശ്രദ്ധിക്കേണ്ടതവിടെ വെള്ളം കിട്ടുന്നൊരേര്യ ആവണം പിന്നെ തൊഴിലിന് നമ്മള് ജോലിക്കൊക്കെ പോകാന് വേണ്ടിയിട്ട് എത്രയും പെട്ടെന്ന് റോഡ് സൗകര്യം വരെ ഒരു ഇതാവണം ഏരിയ ആവണം അതേപോലെ വീട് പണിയുമ്പോള് വീട്ടിലെ ആവശ്യ അത്യാവശ്യ കാര്യങ്ങളായ അത് പിന്നെ അടുക്കള ബാത്ത്റൂം എല്ലാ സംവിധാനങ്ങളും ഉള്ളൊരു വീടായിരിക്കണം പിന്നെ അതേപോലെ കടകള് ഒക്കെ സാധനങ്ങള് വീട്ടാവശ്യത്തിന് സാധനമൊക്കെ ഒക്കെ കട സാധനങ്ങളൊക്കെ കിടുന്ന ഒരു ഏരിയ ആയിരിക്കണം വീട് പണിയുമ്പോള് പിന്നെ കറണ്ട് കിട്ടാനുള്ളൊരു സംവിധാനങ്ങള് വേണം അതവിടെ നോക്കേണ്ടതുണ്ട് പിന്നെ പിന്നെ മുമ്പത്തെ ഗ്രാമ പുല് പുല്വീടുകളായിരുന്നു പിന്നീടത് ഓടിലേക്കും പിന്നെയിപ്പോള് ടെറസിന്റെ വീടുകളായി പിന്നെ മാറി കാലം മാറിയേനനുസരിച്ച് ഇതൊക്കെ മാറി ഇപ്പോഴും പല കുഗ്രാമങ്ങളിലിപ്പോഴും ഓട് ഇട്ട വീടും പുൽ മേഞ്ഞ വീടുകളൊക്കെ ഇപ്പോഴും ഉണ്ട് പല സ്ഥലങ്ങളിലും കുറിച്ച് അതിനേക്കുറിച്ച് എന്താണെന്നുള്ളത് നമുക്കറിയില്ല ഇപ്പോള് ഗ്രാമങ്ങളിലെ വീടുകള്ക്ക് പഴയതുപോലെ അപേക്ഷിച്ച് വളരെയേറെ മാറിയിട്ടുണ്ട് ഇപ്പോള് നഗരങ്ങളിലെ വീടുകളെ പോലെ ആണ് ഇപ്പോള് ഗ്രാമങ്ങളിലെ വീടുകള്